ഞാൻ ഒരു കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോ എനിക്ക് എൻ്റെ രണ്ട് കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി വിളിച്ചതാണ് ഒന്ന് യു കെ ജി ഒന്ന് രണ്ടാം ക്ലാസ്സ് അവിടെ ദൂരം കൂടുതലായതുകൊണ്ട് ഞാൻ ഇവിടേയ്ക്ക് വിടാൻ വേണ്ടി വിചാരിച്ചു മാറ്റി ചേർക്കാനാണ്

ആ ടി സി ഒക്കെ മേടിച്ചിട്ടുണ്ട് അമ്പതിനായിരം രൂപയോ നമുക്ക് ഡിസ്ക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല അമ്പതിനായിരം രൂപ തന്ന് നിങ്ങൾ എന്തൊക്കെ ഫെസിലിറ്റി ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബസ്സ് ഉണ്ടാകുമോ

ഓക്കേ ഓക്കേ വീട് പനവല്ലി ഏത് സമയത്താണ് വരിക വൈകുന്നേരം

അപ്പോൾ ചെറിയ കുട്ടികളെ നിങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വണ്ടിയിൽ ആരെങ്കിലും ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ ഇവിടെ ചേർക്കുമ്പോൾ എൻ്റെ കുട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഏറ്റെടുക്കണം ഓക്കേ എന്നാൽ ശരി ആ ശരി എന്നാൽ